ദീർഘ ദൂര ബൈക്ക് യാത്ര ബൈക്ക് യാത്ര എന്ന് വെച്ചാൽ ഇരുചക്ര ബൈക്ക് എന്ന് വെച്ചാൽ ഇരുചക്രവാഹനമാണ്

ഇത് ആ സീറ്റുകളുടെ വലിപ്പ കുറവും ഇതും കാരണമാണ് ഉണ്ടാകുന്നത് ബൈക്ക് ഓടിക്കുന്ന ആൾ കൺ തുടർച്ചയായി ഒരു ആറ് മണിക്കൂർ ഒക്കെ ഓടിക്കുമ്പോളേക്കും നമുക്കും വയ്യാണ്ട് ആകുകയാണ് ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കൂടെ ഒരാളെയും കൂടി കരുതുന്നത് എപ്പോളും നന്നായിരിക്കും ജയ് ഹിന്ദ്